നല്ല ആരോഗ്യം സംവിധാനമാണ് ഇന്ത്യയിൽ ഉള്ളത് എങ്കിലും ജനസംഖ്യ അനുസരിച്ചുള്ള സംവിധാനം നമുക്ക് ഇപ്പോൾ ഇല്ല അതിന് അനുസരിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പെർ തൗസന്റിന് ഇത്ര ഡോക്ടേഴ്സ് ഇത്ര ഹോസ്പിറ്റൽസ് എന്നൊക്കെയുണ്ട് അത് ആ ഒര് പേഴ്സൻറ്റേജ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിട്ടില്ല എങ്കിലും ഇന്ത്യയിലെ സംബന്ധിച്ച് കംപേറ് ചെയ്യുമ്പളത്തേക്കും കേരളത്തിൽ അത് കുറച്ചും കൂടി ബെറ്ററാണ്